ഈ ഒരു ചെടിയോ ഒരു തോട്ടത്തില് എന്താവശ്യങ്ങൾക്കും മൃഗങ്ങളുടെ മൃഗങ്ങൾക്കും വലിയൊരു പങ്കുണ്ട് അതായത് ഇപ്പോൾ ഒരു പരാഗണം നടക്കണമെങ്കിൽ തേനീച്ചയുടെ ആവശ്യമുണ്ട് അതേപോലെതന്നെ നമ്മുടെ ചെടികളുടെ ആവശ്യങ്ങളും പരിസ്ഥിതിടെ ആവശ്യവും കൂടാതെ കാട്ടുമൃഗം ആവശ്യങ്ങളും നമ്മളൊരു സന്തുലിത അവസ്ഥേയിൽ എത്തിക്കണം അവർക്കും ജീവിക്കണം അവരവിടെ ഇല്ലാത്തതുകൊണ്ടാണ് അവര് നമ്മുടെ തോട്ടത്തിലേക്കിറങ്ങി പുല്ലും ചെടികളൊക്കെ നശിപ്പിക്കുന്നത് അങ്ങനെയൊരു ചിന്ത വേണം കുരങ്ങ് എന്തുകൊണ്ടാണ് നമ്മുടെ പിന്നെ വീട്ടിലും നാട്ടിലൊക്കെ ഇറങ്ങി നടക്കുന്നത് ങേ അപ്പോൾ അവർക്ക് ആ ഫുഡും കാര്യങ്ങളും കിട്ടാൻ വേണ്ടിയിട്ടാണ് അവര് കൂടുതൽ ഇതാക്കുന്നത് അപ്പോൾ നമ്മള് തോട്ടത്തിലെ ചെടികളും ബാക്കി ഭക്ഷ്യ വസ്തുക്കളുമൊക്കെ സംരക്ഷിക്കുന്നത് പോലെ അവർക്ക് വേണ്ടത് ചെയ്ത് കൊടുക്കുകയും ചെയ്യുകയാണെങ്കില് ഒരു സന്തുലിതാവസ്ഥേയില് എത്തിക്കാൻ പറ്റും